ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മിച്ചിട്ടുണ്ട് ഗ്രീറ്റിംഗ് എൻ്റെ മകൾ ചെറുതായിരിക്കുമ്പോൾ സ്വയം ഉണ്ടാക്കി നൽകുന്ന ഗ്രീറ്റിംഗ് കാർഡ് വേണം എന്ന് ടീച്ചറ് നിർദ്ദേശിക്കുകയും മകൾ വന്ന് പറയുകയും ഞാൻ അത് ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്തു അത് ക്ലാസ്സിൽ കൊണ്ടുപോവുകയും എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും അത് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു എന്നു വച്ചാൽ ആ ഗ്രീറ്റിംഗ് കാർഡ് അത്രയും കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പം മകൾ കൊണ്ടുപോയ ആ ഗ്രീറ്റിംഗ് കാർഡിനെ എല്ലാവരും കയ്യടിക്കുകയും അത്രയും പ്രോത്സാഹനം കിട്ടുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഇഷ്ടമാണ് പിന്നെ കൂടുതൽ പറയാനുള്ളത് എനിക്ക് എനിക്ക് സമ്മാനമായി കിട്ടിയത് വച്ചാൽ എൻ്റെ മൂത്തമ്മ അമ്മയുടെ ചേച്ചി ഒരു ആനയെ ഉണ്ടാക്കി മണ്ണുകൊണ്ട് മണ്ണുകൊണ്ട് കളിമണ്ണൊന്നും കിട്ടാത്തതുകൊണ്ടുതന്നെ മണ്ണും ചാക്കും നുറുക്കി എടുത്ത് കുഴച്ച് ഉണ്ടാക്കിയ ഒരു ആന ആ ആനയെ ശരിക്കും കൊമ്പ് തുമ്പിക്കയ്യും കൊമ്പ് കോഴീൻ്റെ കോഴിവാലിൻ്റെ അറ്റം മുറിച്ചെടുത്ത് അത് കൊമ്പാക്കുകയും അങ്ങനെ ചെയ്ത് ആന ശരിക്കും ഒരു ആനയെ ആനേന നോക്കുന്ന ആ ഒരു രൂപം എൻ്റെ മനസ്സിൽ ഇപ്പോഴും പോയിട്ടില്ല അത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്